ഞാൻ ഞാൻ കുറച്ച് അങ്ങനെ വരയ്ക്കുന്ന ആളല്ല എന്നാലും എനിക്ക് വരയ്ക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട് എന്റെ അനിയൻ നന്നായിട്ട് വരയ്ക്കും നല്ല രസമാണ് അവൻ വരയ്ക്കുന്നത് എന്ത് സ്പീഡിൽ വരയ്ക്കും പക്ഷേ എനിക്ക് ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് വരയ്ക്കാനുള്ള കഴിവില്ല എന്ന് തോന്നുന്നു കാരണം വൻ ശോകമാണ് എന്റെ വരകളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്ര നന്നായിട്ട് എനിക്ക് വരയ്ക്കാൻ അറിയില്ല പക്ഷേ രാജരാജരവിവർമ്മയുടെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ എന്താ പറയുക അത്ഭുതം തോന്നാറുണ്ട് അദ്ദേഹത്തെ പോലെ ഒരു കലാകാരനെ കലാകാരനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഈ കാലത്തും നിലനിൽക്കുന്നു സൂക്ഷിക്കപ്പെടുന്നു സംരക്ഷിക്കപ്പെടുന്നു അദ്ദേഹം വരച്ച ഓരോരോ ചിത്രങ്ങൾ കാണുമ്പോൾ സന്തോഷമുണ്ട് കാണുമ്പോൾ ചിത്രം വരയ്ക്കാൻ തോന്നാറുണ്ട് അങ്ങനെയൊക്കെയാണ് എനിക്ക് ഞാൻ ചെറുതായിട്ട് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മരങ്ങളും ഇതൊക്കെ വരയ്ക്കും എനിക്ക് കാര്യമായിട്ട് വലിയ വലിയ രചനകൾ വരയ്ക്കാൻ അറിയില്ല പക്ഷേ എനിക്ക് നല്ല താല്പര്യം ഉണ്ട് പഠിക്കണം എന്ന് താല്പര്യമുണ്ട് അതിന് എന്തെങ്കിലും എളുപ്പവഴികൾ ഉണ്ടെങ്കിൽ കണ്ടാൽ വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ എളുപ്പവഴികൾ ഒക്കെ വരയ്ക്കുന്നത് ഇഷ്ടമാണ് പിന്നെ അതേപോലെതന്നെ നല്ല നല്ല പിന്നെ കലാകാരന്മാരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ അവരുടെ അത് നമുക്ക് അതിൽ അവർ കുറേ പല രീതിയിൽ ഉദ്ദേശിക്കുന്നുണ്ടാവും അതൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്